ഇന്ത്യയിലെ ഭക്ഷണം എങ്ങനെയാണെന്നു ചോദിച്ചുകഴിഞ്ഞാല് പല തരത്തിലുള്ള ഭക്ഷണമുണ്ട് ചിക്കൻ കൊണ്ടുള്ളത് പച്ചക്കറികള് കൊണ്ടുള്ളത് അങ്ങനെ ഒരുപാടുണ്ട് ഇറച്ചികള് കൊണ്ടുള്ളതെന്നൊക്കെ പറഞ്ഞുകഴിയുമ്പോള് ബിരിയാണി ഫ്രൈഡ് റൈസ് മന്തി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെയാണ് ഉപയോഗിക്കാറ് അതു വലിയ പരിപാടികൾക്ക് കല്യാണത്തിന് മുസ്ലിംസിൻ്റെ നോമ്പുതുറ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ് പിന്നെ പച്ചക്കറികളെന്നൊക്കെ പറയുമ്പോള് കൂടുതലായിട്ടും ഓണത്തിനൊക്കെയാണ് ഉപയോഗിക്കാറ് ഓണത്തിനൊക്കെ ഒരുപാട് പച്ചക്കറികളൊക്കെ ഉള്ള ഫുഡ് ഐറ്റംസൊക്കെയാണുണ്ടാവുക അതില് തന്നെ ഏറ്റവും കൂടുതല് ഉപയോഗിക്കുന്നത് സാമ്പാറിനൊക്കെ കുമ്പളങ്ങയും മുരിങ്ങാക്കോലും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസുണ്ട് പിന്നെ ഇവയിലൊക്കെ ഇടാൻ കൂടുതല് സ്പൈസസായിട്ടുള്ളെ ചിക്കൻ മസാല മീറ്റ് മസാല ഗരം മസാല മുളകുപൊടി മല്ലിപ്പൊടി അങ്ങനത്തൊക്കെയാണ് ഉപയോഗിക്കാറ് പിന്നെ എല്ലാവരുടെയും ഇഷ്ട വിഭവങ്ങളാണ് പച്ചക്കറികള് കൊണ്ടുള്ളയും ഫ്രൈഡ് റൈസ് മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇപ്പോള് എല്ലാ പരിപാടിക്കും ഫ്രൈഡ് റൈസ് അങ്ങനത്തതൊക്കെയാണ് ഉപയോഗിക്കാറ്